വയലിന് ഞാന് കുറച്ച് കാലം പഠിച്ചിട്ടുണ്ടെനിക്ക് വയലിന് പഠിക്കാനാഗ്രഹം തോന്നിയിട്ട് പഠിക്കാന് പോയതായിരുന്നു പിന്നെ തുടര്ന്ന് പഠിക്കാന് പറ്റിയില്ല സാമ്പത്തികമായിട്ടൊക്കെ അതിന് ഒരുപാട് കാശ് ചെലവ് വന്നപ്പോള് അങ്ങനെ നിര്ത്തി പിന്നെ അങ്ങനെ വയലിന് കുറച്ച് കാലം പക്ഷെ എന്നാലും കുറച്ചൊക്കെ വായിക്കാനൊക്കെ പഠിച്ചു വയലിന് പിന്നെ ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു പാട്ട് പഠിക്കാന് പാട്ടും കുറച്ച് കാലം പഠിച്ചു അത് ഒര് സംഗീതജ്ഞന്റെ കീഴില് കുറച്ചുകാലം പഠിച്ചു പിന്നീട് തുടര്ന്നത് അതും കൊണ്ടുപോകാന് പറ്റിയില്ല പക്ഷേ വല്ലാത്ത ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കാന് പാട്ട് പഠിക്കുക അതുപോലെതന്നെ വയലിന് എന്താണ് പഠിക്കുക അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹങ്ങളായിരുന്നു പിന്നെ തുടര്ന്ന് പഠിക്കാനുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം അത് നിര്ത്തിവയ്ക്കേണ്ടി വന്നു പിന്നെ വയലിന് ചില എന്താണ് മ്യൂസിക്കല് പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോള് കോളേജില് സ്കൂളിലൊക്കെ പരിപാടികള് ഉണ്ടായിരുന്നപ്പോഴൊക്കെ എന്താണ് അവതരിപ്പിക്കുവാരുന്നു പിന്നെ പാട്ട് പാടാനവസരങ്ങള് പല വേദികളൊക്കെ കിട്ടുമ്പോള് അവിടുന്ന് പാടാറുണ്ട് തുടര്ന്ന് പഠിക്കാനൊന്നാമത് ഒന്നാമത്തെ കാരണെന്താച്ചാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പഠിക്കാഞ്ഞത് പിന്നെ എന്നാലും വേദികള് കിട്ടുമ്പൊഴൊക്കെ ഇങ്ങനെ ഓരോ വേദികളില് പോയി പാടാറുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ പിന്നെ ഒപ്പം പഠിച്ച ഗെറ്റുഗതര് സ്കൂള് പഠിച്ച കുട്ടികളൊക്കെയുള്ള ഗെറ്റുഗതറൊക്കെ വരുമ്പോള് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ വരുമ്പോള് പിന്നെ എന്താണെന്നു വെച്ചാല് അമ്പലങ്ങളില് അങ്ങനെയുള്ള അവിടൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോള് അതില് പോയിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട് പാടാന് അങ്ങനെ അമ്പലത്തില് അമ്പലങ്ങളിലും പിന്നത് പോലെതന്നെ നാട്ടിലൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോള് അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനവിടുന്നൊക്കെ എല്ലാവരുടെയും പ്രോത്സാഹനമൊക്കെയുണ്ട് അങ്ങനെ കല മുന്നോട്ട് കൊണ്ടുപോകുന്നു